ഓ എന്നാ എവിടെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ കടയിലോട്ടെങ്ങും വരുന്നില്ലായിരുന്നോ ആ വെള്ളമൊക്കെ ഇറങ്ങിയോ ഇറങ്ങി അല്ലേ ആണോ ആ ചേച്ചി പിന്നെ ഞാൻ അന്ന് തന്ന അരി ഉണ്ടല്ലോ നമ്മുടെ ചൂരത്തിൻ്റെ പുതിയൊരു അരി ആയിരുന്നു വന്നതേ നല്ല അരിയായിരുന്നോ അത് വേവൊക്കെ ഉണ്ടായിരുന്നോ ആണല്ലേ ആ അത് എന്താന്നറിയോ ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞായിരുന്നേ പുതിയ അരിയായത് കൊണ്ടേ പുതിയ അരിയായത് കൊണ്ടേ വേവ് ഇച്ചിരി കൂടുതലാണല്ലേ ആ പക്ഷെ നല്ല ചോറുണ്ടായിരുന്നു അല്ലേ വെച്ചിട്ട് നല്ലതായിട്ട് ചോറില്ലായിരുന്നോ ഉണ്ടായിരുന്നു ആ കുഴപ്പം ഇല്ല ആ ആ ആ ആ ആ ആ ചേച്ചി എല്ലാവരോടും ചോദിച്ചിട്ട് നമുക്ക് അത് തന്നെ ആ അരി തന്നെ ഇങ്ങ് കൊണ്ടുവരാമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു പിന്നെ ആ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോവാനായിട്ട് പാടാണ് ആ ആ ആ എന്താ എന്താ ചേച്ചി എന്നാ ഒക്കെയാ വേണ്ടത്

ആ ബിരിയാണി അരി ഉണ്ട് ആ ബിരിയാണി അരി ഇന്ത്യ ഇന്ത്യ ഗേറ്റിൻ്റെ ഉണ്ട് ബിരിയാണി അത് എത്ര കിലോ വേണം വേണ്ടി വരും ആ ആ ആ ഈ രണ്ട് കിലോ അരിക്കുള്ള എടുക്കാനോ അതോ കുറച്ച് മതിയോ ആ പിന്നെ ചേച്ചി നട്ട്സിനൊക്കെ വില കൂടുതലാണ് കേട്ടോ നട്ട്സിനൊക്കെ വെല കൂടുതലാണേ ഒക്കെ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ കുറച്ച് കുറച്ച് തരാം ആ പിന്നെ വേറെ എന്നാ വേണം ബിരിയാണി ഐറ്റം ആ പച്ചക്കറി വേണോ ആ ചേച്ചി എനിക്ക് തോന്നുന്നു ഈ സവോള ഇപ്പോൾ ഈ മഴ തണുപ്പൊക്കെ അല്ലേ ചേച്ചി അതുകൊണ്ടായിരിക്കും കുറച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ അത്യാവശ്യത്തിനുള്ള വാങ്ങിച്ചിട്ടേ കുറച്ച് വാങ്ങിച്ചാൽ മതി പിന്നെ തക്കാളിക്ക് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ തക്കാളിക്ക് നൂറ്റി ഇരുപത് ഒക്കെയാവുന്നേ അത്യാവശ്യം അര കിലോ വാങ്ങിച്ചിട്ട് ആ കുറയുമായിരിക്കും ചേച്ചി ഒരു മാസത്തിനുള്ളിൽ ഈ മാസമൊക്കെ കഴിയുമ്പത്തേക്കും കുറച്ച് കുറയുമായിരിക്കും അപ്പോൾ അത് കുറഞ്ഞ് കഴിയുമ്പത്തേക്കേ കുറച്ച് ആ വാങ്ങിച്ചാൽ മതിയേ ആ സവോളയും ചേച്ചി കുറച്ച് കൊണ്ട് പോയാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ വേറെ എന്താ വേണ്ടത് വേണ്ട ആ ആ ബീൻസിനൊക്കെ വില കൂടുതലാണ് കേട്ടോ ബീൻസ് ഞാൻ എല്ലാം ഞാൻ കുറച്ച് കുറച്ച് എടുക്കാം കാൽ കിലോ ഒന്നും കൊണ്ട് പോവേണ്ട

ആ ആ ആ നമ്മുടെ ആ ഓക്കേ ആ ശരി ചേച്ചി ആ ശരി ചേച്ചി